ആധുനികകാല പാചകവും പഴയപാല പാചകവും തമ്മിൽ എങ്ങനെ താരതമ്യം ചെയ്യും ഇവയിലേതാണ് താങ്കൾക്കിഷ്ടം എന്തുകൊണ്ട് ആധുനികകാല പാചകം എന്ന് പറയുമ്പോൾ പാചകത്തിൻ്റെ ട്രെൻഡും സ്റ്റൈലും എല്ലാം മാറും അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന ഫുഡിലാണെങ്കിലും എല്ലാം ഡിഫറെൻ്റ് ആണ് ആധുനികകാല പാചകം എന്ന് പറയുമ്പോൾ പഴയകാല പാചകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മള് വിറകടുപ്പ് ചിരട്ട ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കുക്കിങ്ങ് ചെയ്തെടുക്കുന്ന രീതിയാണ് പഴയകാല പാചകം ആധുനികതയൊക്കെ വരുന്ന സമയത്ത് ഇത് ഗ്യാസ് സ്റ്റവ്വ് എന്നുള്ള ലെവൽ ആയി അതുപോലെ ഇൻഡക്ഷൻ കുക്കർ എന്നുള്ള ലെവൽ ആയി എന്തോ അറിയില്ല പാചകത്തിൻ്റെ ഡിഫറൻസ് കൊണ്ടാണോ അതോ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ സ്റ്റൈല് കൊണ്ടാണോ ഹെൽത്ത് വളരെ വീക്കായിട്ടുണ്ട് ആധുനികതയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് പഴയകാല പാചകത്തെ സംബന്ധിച്ചിടത്തോളം പഴയകാല ഫുഡിൻ്റെ ടേസ്റ്റ് എല്ലാം കൊണ്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതും അതായിരുന്നു ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിരിക്കണം പിന്നെ ആധുനിക പഴയകാലത്ത് നമുക്ക് കുക്കിങ്ങ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് കാര്യങ്ങളും എല്ലാം സുലഭായിട്ട് കിട്ടിയിരുന്നു വിറകായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള സോഴ്സ്കളായിക്കോട്ടെ എല്ലാം നമുക്ക് സുലഭായിട്ട് കിട്ടിയിരുന്നു പഴയ കാലത്ത് ആധുനികതയിലോട്ട് വരുമ്പോൾ നമ്മള് പഴയകാല ഒരു കാര്യങ്ങളിലോട്ട് ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ തന്നെ നമുക്ക് പിന്നേ വിറക് അതുപോലുള്ള കാര്യങ്ങള് ചിരട്ട അതു പോലുള്ള കാര്യങ്ങളൊക്കെ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന രീതിയും നമുക്ക് അതിൻ്റെ മെറ്റീരിയൽസ് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ലഭിക്കാന് ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈസി മെത്തേഡ് ആണ് ആധുനികതയിലെ കുക്കിംഗ് കറൻറ് ഉപയോഗിച്ചിട്ടാണെങ്കിലും ഗ്യാസ് ഉപയോഗിച്ചിട്ടാണെങ്കിലും ഈസി മെത്തേഡ് ആണ് കൂടുതൽ റിസ്ക്കൊന്നും ഇല്ല പിന്നെ ഫുഡ് സ്റ്റൈല് ലൈഫ് സ്റ്റൈല് എല്ലാം മാറിയിട്ടുണ്ട് പാചകത്തെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാക്കുന്ന പാചകം ചെയ്ത് നമ്മള് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ഫുഡ് ഐറ്റംസിലായിക്കോട്ടെ ഒരുപാട് വറൈറ്റികള് നമ്മള് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഹെൽത്തിയാണോ അൺ ഹെൽത്തിയാണോ എന്നുള്ളതിലുപരി നമ്മൾ അവിടെ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ ടേസ്റ്റിനാണ് കൂടുതല് ടേസ്റ്റുള്ള ഫുഡ് നമ്മള് കൂടുതൽ ഉപയോഗിക്കുന്നു ആധുനികതയിൽ അത് പല രീതിയിലും അത് നമ്മുടെ ലൈഫിനെ എഫ്ഫക്റ്റ് ചെയ്തിട്ടുണ്ട് അൺ ഹെൽത്തിയായിട്ടുള്ള ഒര് ഫുഡ് സ്റ്റൈല് ലൈഫ് സ്റ്റൈല് ഫുഡ് ഹാബിറ്റ്സ് നമ്മള് ഫോളോ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ആധുനികതയിലെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് ഹെൽത്ത് ഇഷ്യുസ് നമ്മള് ഫേസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻ്റേണൽ ഓർഗൻസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങള് വീക്കായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കരളാവട്ടെ ഹാർട്ട് ആകട്ടെ എല്ലാം നമ്മള് ഈ ലൈഫ് സ്റ്റൈലു കൊണ്ടും ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടും പ്രശ്നങ്ങള് നേരിടുവാണ് ആധുനിക കുക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് പല രീതിയിലാണ് അതില് ഉപയോഗിക്കുന്ന കാര്യങ്ങളാവട്ടെ നമ്മള് അൺ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് കുടുതലായിട്ടും നമ്മള് ഉപയോഗിക്കുന്നത് ഏത് ആധുനികതയിൽ ഉപയോഗിക്കുന്ന കുക്കിംഗ് സ്റ്റൈലും ആധുനികതയിൽ നമ്മള് ഉപയോഗിക്കുന്ന ലൈഫ് സ്റ്റൈല് ഫുഡ് ഹാബിറ്റ്സ് എല്ലാം നമ്മുടെ അൺ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലൊട്ടാണ് നമ്മള് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നത് പഴയകാല ഫുഡ് ഹാബിറ്റ്സിലോട്ട് പോകാനും പഴയകാല ലൈഫ് സ്റ്റൈലിലോട്ട് പോകാനും പഴയകാല കുക്കിങ്ങിലോട്ട് പോകാനുമാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ അത് ഈ എത്രത്തോളം പ്രസക്തമാവും എന്നറിയില്ല എത്രത്തോളം ആഗ്രഹിക്കാൻ പറ്റും എന്നു നമുക്കറിയില്ല നമുക്ക് വളരെ റിസ്ക്കി ആണ് ഇനി ഈ പഴയകാല ഒരു ലൈഫ് സ്റ്റൈലിലൊട്ടു പോകാന് നമ്മള് ഫോളോ ചെയ്യുന്ന ഫുഡിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ്സുകളാവട്ടെ അപ്പോൾ പഴയ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചിക്കൻ എടുത്താൽ ഒരു ചിക്കൻ കറി അല്ലെങ്കിൽ ആ ലെവൽ ലെവലില് കുറച്ച് ഐറ്റംസ് മാത്രമുള്ളു ഇന്നു തന്നെ ഒരൊറ്റ ചിക്കൻ കൊണ്ടുതന്നെ ഒരുപാട് ഒരുപാട് പേരിട്ട് പല പേരിനും നമ്മള് പല വിഭവങ്ങൾ ഉണ്ടാക്കി കുട്ടികൾക്കത് ഫുൾ അൺ ഹെൽത്തിയായിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സും ലൈഫ്സ്റ്റൈലുമാണ് നമ്മള് അതുകാരണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയുന്നത് അൺ ഹെൽത്തിയായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മള് ഈ ഫുഡ് കുക്കിംഗ് കൊണ്ടും അല്ലെങ്കിൽ ഒരു ആധുനികതയിൽ ജീവിക്കുന്ന ഒരു സെറ്റപ്പിൽ നമ്മള് ഫേസ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്